ഞങ്ങൾ അവധിക്കാലം ആയാൽ ഞങ്ങൾ പോവുന്നത് നെയ്യാർ ഡാമിലാണ് മിക്ക വെക്കേഷനുകളും ഞങ്ങൾ നെയ്യാർ ഡാമിൽ പോകുന്നുണ്ട് നെയ്യാർ ഡാം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു സ്ഥലമാണ് അവിടെ അഞ്ച് ഷട്ടറുകൾ ഉണ്ട് ആ ഷട്ടറുകളിലെ വെള്ളം തുറക്കുമ്പോൾ ഈ ഏരിയയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കിട്ടുന്നതാണ് പിന്നെ ലയൺ സഫാരി പാർക്ക് ഉണ്ട് ബോട്ടിങ്ങ് ഉണ്ട് പിന്നെ കുട്ടികൾ കളിക്കാനായിട്ട് ഇത് പ്ലേഗ്രൗണ്ട് ഉണ്ട് പാർക്ക് ഉണ്ട് പിന്നെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗാർഡൻ ഉണ്ട് പല പല പൂക്കളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ അവിടെ നമുക്ക് വാട്ടർ ആക്റ്റിവിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് നെയ്യാർ ഡാം